മുടിയുടെയും ചർമ്മത്തിന്റെയും മുടിയുടെ വളർച്ചയ്ക്കും ചർമ്മത്തിൻ്റെ ഭംഗിക്കുമായിട്ട് ചെറുപ്പം മുതലേ അമ്മവഴി ഞങ്ങൾ പരിചയപ്പെട്ടിരിക്കിന്നത് കാച്ചെണ്ണ നല്ലതുപോലെ തലയിൽ തേച്ചു പിടിപ്പിച്ചതിനുശേഷം ഏകദേശം ഒരു അരമണിക്കൂറിനുശേഷം നല്ല പച്ച വെള്ളത്തിൽ കുളിക്കുക എന്നത് ചെറുപ്പം മുതൽ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരുന്ന അമ്മ ശീലിപ്പിച്ച ഒരു രീതിയാണത് അതുവഴി മുടിക്കു നല്ല കാന്തിയും ശക്തിയും വർധിക്കാൻ കാരണമാകുന്നുണ്ട് ഈ എണ്ണ കാച്ചുന്നത് കയ്യൂണ്യം മുതൽ മറ്റ് പല വിധ പച്ച മരുന്നുകളും ഇട്ടുകൊണ്ടുള്ള എണ്ണ കാച്ചിയെടുക്കുന്ന രീതിയാണ് അവലംബിച്ചിരുന്നത് അതുപോലെത്തന്നെ ഈ എണ്ണ പറ്റി കുളിക്കുമ്പോൾ ഇടയ്ക്ക് ചെമ്പരത്തിത്താളി നല്ലപോലെ പതപ്പിച്ച് തേച്ചുകുളിക്കാറുണ്ട് അതുപോലെതന്നെ പച്ച വാഴയില നന്നായിട്ടു കശക്കി തേച്ചുകുളിക്കാനായിട്ടും ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ജലദോഷം തുടങ്ങിയ കാര്യങ്ങള് വരുമ്പോൾ ഞങ്ങളുടെ നാട്ടില് അറിയപ്പെടുന്ന പ്രചാരത്തിലുള്ള ഒന്നാണ് ചുക്കുംവെള്ളം ചുക്ക് കുരുമുളക് അതുപോലെതന്നെ മുയൽചെവിയൻ തുടങ്ങിയ പച്ചിലകളും ഉണങ്ങിയ ചുക്കും കുരുമുളകും പൊടിച്ച് പൊടിച്ചിട്ട് അത് നല്ലതുപോലെ തിളപ്പിച്ച് വെള്ളം പാതിയാക്കി കുടിക്കുന്ന കരിപ്പെട്ടി ശർക്കരയും കടിച്ചുകൂട്ടി ഉപയോഗിക്കിന്ന ഒരു രീതിയുണ്ട് അത് ജലദോഷം വന്നാൽ അവയെ പ്രിവെൻറ്റിയ്യാനായിട്ട് ചെറുപ്പം മുതൽ ഞങ്ങൾ ശീലിച്ചിട്ടുള്ള ഒരു രീതിയാണ് അതുപോലെതന്നെ മുഖത്തെ പാടുകളും മറ്റും ഒഴിവാക്കാനായിട്ട് അമ്മ ധാരാളം കറ്റാർവാഴ നട്ടുപടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഇല പറിച്ചെടുത്ത് അതില് ജെല്ലായിട്ടുള്ള ഭാഗം തേച്ചുപിടിപ്പിക്കാറുണ്ട് മുഖത്ത് അത് കൂടുതലും പെൺകുട്ടികളാണ് ഉപയോഗിച്ചുവരുന്നത് അതുവഴി മുഖത്തിൻ്റെ കാന്തി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് അതുപോലെതന്നെ പോഷകങ്ങളുടെ ലഭ്യത ശരീരത്തിനു ലഭിക്കുന്നതായിട്ടുള്ള മുരിങ്ങയില തുടങ്ങി പലതരം ഇല ഇട്ട് കറിവച്ചുനൽകുക എന്നതു വഴി അതൊരു പ്രതിരോധ ചികിത്സ എന്ന രീതിയിൽ നൽകാറുണ്ട് അതുപോലെ തന്നെയാണ് നെല്ലിക്ക ഉണക്കിപ്പൊടിച്ച് അത് ഒരു അല്ലല്ല ഒരു മരുന്നായി ഒരു മരുന്നായിട്ട് തലയിൽ തേച്ചുപിടിപ്പിച്ച് ഉപയോഗിക്കാറുണ്ട് മുടിയുടെ വളർച്ചയ്ക്ക് അതു നല്ലതാണെന്നാണ് പറയുന്നത് അങ്ങനെ പാരമ്പര്യമായിട്ട് അമ്മയിൽനിന്നും ആർജ്ജിച്ചതായ ചില പ്രയോഗങ്ങൾ ഉണ്ട് മുഖത്തിൻ്റെ കാന്തി വർദ്ധിക്കാനായിട്ട് പച്ച മഞ്ഞളരച്ച് മുഖത്തു തേച്ചുപിടിപ്പിച്ച് പത്ത് മിനിറ്റിനുശേഷം കഴുകിക്കളയുന്ന ഒരു രീതിയും സാധാരണയായി ഞങ്ങളുടെ കുടുംബത്തിലെ സ്ത്രീകൾ അവലംബിക്കാറുണ്ട്